ഹലോ സെഞ്ച്വറി റസ്റ്റോറൻറ്റ് അല്ലേ ആ അവിടെ എനിക്ക് കുറച്ച് ട്രഡീഷണൽ ഫുഡ് വേണമായിരുന്നു ഞാൻ എറണാകുളത്ത് നിന്നായിരുന്നു വിളിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തെ ട്രിപ്പിനായിട്ട് അവിടെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കായിട്ട് എനിക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അപ്പോൾ അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഉള്ളത് ഞാൻ ഒരു രണ്ട് മൂന്ന് പേരുണ്ട് എൻ്റെ കസിൻസ് അങ്ങനെ കുറച്ച് ആൾക്കാർ ഉണ്ട്

ആ ഉണ്ട് ഞങ്ങൾക്ക് മീൻ മറ്റേ മീൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാകും അല്ലേ അതെ സീ ഫുഡ് ആണ് പിന്നെ അല്ലാത്തവർ അല്ലാതെ സീ ഫുഡ് കഴിക്കാത്തവരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ വെജിറ്റേറിയൻ ഉണ്ട് പിന്നെ മറ്റേ ചിക്കൻ ഐറ്റംസ് ബീഫ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേറെ വേറെ വെറൈറ്റീസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചിക്കൻ ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത് ചിക്കൻ ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത്

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അതെ അതെ ഉം ആ ഓക്കെ ഓക്കെ അവിടെ താമസിക്കാൻ ഉള്ള സൗകര്യം ഒക്കെ ഉണ്ടാവില്ലേ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവുമോ റസ്റ്റോറൻറ്റിൽ ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ നാളെ തിരിക്കുന്നുണ്ട് എന്തായാലും ഓക്കെ ശരി